നമ്മുടെ നാട്ടിലെ ആളുകൾ ഒരുപാടധികം സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ അതിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ ഈ ഗവൺമെൻ്റ് തന്നെ എല്ലാ തരത്തിലുള്ളെ ഡോക്യുമെൻ്റ്സും ഓൺലൈൻ ലെവലിലോട്ട് വർദ്ധിപ്പിച്ചിരിക്കുന്നത് അക്ഷയ സെൻ്ററുകൾ വഴി ഓൺലൈനായിട്ടാണ് ഇപ്പോൾ മിക്ക കാര്യങ്ങളും തന്നെ നടക്കുന്നത് അപ്പോൾ ഈ ഓൺലൈൻ ആയി അതിൻ്റെ ഉദ്ദേശം എന്നു പറയുമ്പോഴത്തേക്കും ഏകദേശം ഒരു നയൻ്റീൻ എയ്റ്റീസ് മുതലുള്ള ആൾക്കാർക്കാണ് ഏകദേശം ഈ ഫോണുകളുടെ യൂസേജ് അധികം അറിയാനാവും അതിന് മുമ്പുള്ളവരൊക്കെ തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു ഈ ഫോൺ യൂസേജ് അല്ലെങ്കിൽ ടെക്നോളജിപരമായിട്ട് അധികം ടെക്നോളജിപരമായിട്ട് അധികം ഇത് കുറവുള്ള ആൾക്കാരല്ല വിജ്ഞാനം കുറവുള്ള ആൾക്കാരാണ് അപ്പം അവരിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കൂടുതൽ ക്ലാസ്സുകൾ നൽകുക ഫോൺ യൂസേജ് അപ്പം അവർ അവരെ എങ്ങനെ എന്നുള്ളതിന് ഒരു സമാനമായിട്ടാണ് അവർക്ക് കൂടുതൽ ക്ലാസ്സുകൾ നൽകുക ഇതിനെപ്പറ്റി ഇപ്പം അക്ഷയ സെൻ്ററിൽപ്പോയി ഒരു ആധാർ കാർഡ് ആധാർ കാർഡ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അക്ഷയ സെൻ്ററിൽ പോവേണ്ട ഒരു ആവശ്യവുമില്ല നമുക്ക് നമ്മുടെ ഫോണിൽതന്നെ ഇരുന്ന് ചെയ്യാവുന്നൊരു കാര്യമാണ് പാൻ കാർഡ് ഉണ്ടാക്കാം അതുപോലെതന്നെ നമുക്ക് വേണ്ട ഡോക്യുമെൻ്റ്സ് എടുക്കാം എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓൺലൈനായിട്ട് നമുക്കുതന്നെ ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഫോണിൻ്റെ യൂസ് വഴികൊണ്ട് നമുക്ക് എല്ലാം ചെയ്യാം ചെയ്തു തീർക്കാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ കാലഘട്ടത്തിൽ അതായത് നമ്മുടെ എനിക്ക് തോന്നുന്നു എൻ്റെ വാപ്പച്ചി അല്ലെങ്കിൽ ഉമ്മച്ചി അവർക്കുപോലും അവർക്കുപോലും ഈ ഒരു യൂസേജിൻ്റെ കാര്യത്തിൽ ഏകദേശം വലിയ പിടുത്തവും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഈ കാര്യങ്ങളിലേക്ക്

നിർദ്ദേശങ്ങൾ നൽകുക അവർക്ക് ബോധോദയ ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുക ഇങ്ങനെ ഇപ്പോൾ എല്ലാ കാര്യത്തിനും അക്ഷയ സെൻ്ററിലോട്ട് ഓടിച്ചാടി ചെല്ലേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ നമുക്കിപ്പോൾ ഫോൺ ഒരു ആധാർ കാർഡ് അപ്പ്ഡേറ്റ് ചെയ്യാനാണെങ്കിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ പാൻ കാർഡ് അപ്ലൈ ചെയ്യാനാണെങ്കിലോ അല്ലെങ്കിൽ ഒരു എന്തിന് ഒരു ബാങ്ക് അക്കൌണ്ട് എടുക്കാൻ പോലും ഇപ്പോൾ നമുക്ക് ഫോണിലൂടെ പറ്റും അത്രയും നമ്മുടെ ടെക്നോളജി അല്ലെങ്കിൽ ഈ പറയുന്ന സാങ്കേതിക ഇത് ഉയർന്നു നിൽക്കുമ്പോൾ അതിൽ ഉണ്ടാവുന്ന ചെറുതും വലുതുമായ ഒരുപാടധികം പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതിനെപ്പറ്റി വലിയ ധാരണയില്ലാത്ത അല്ലെങ്കിൽ അറിവില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഈ കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഒരു ഇതിനെപ്പറ്റി ഒരു ബോധോദയ ക്ലാസുകളോ അല്ലെങ്കിൽ ഇവർക്കതിനെ അതിനോടുള്ള അറിവുകൾ കൂട്ടുകയൊക്കെ ചെയ്യുമ്പോൾ ഇതെടുത്ത് കൊടുക്കുക അതുപോലെതന്നെ വിദ്യാഭ്യാസ തലത്തിൽതന്നെ അവർക്ക് ചെയ്യാം ചെയ്യാവുന്നൊരു കാര്യമാണ് എന്താ നമ്മുടെ പിള്ളേർക്ക് അസൈൻമെൻ്റ്സുകൾ നൽകുക പ്രൊജക്റ്റുകൾ നൽകുക സ്വന്തം വീട്ടിലെ അമ്മയേയും അച്ഛനേയും മുത്തച്ഛനേയും മുത്തശ്ശിയേയും ഇതുപോലുള്ള ക്ലാസ്സുകൾ നൽകി അല്ലെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുക പ്രോജക്റ്റായിട്ട് സബ്മിറ്റ് ചെയ്യുക അതുപോലെ അവർക്കെടുത്തതിന് അവർ ചെയ്തു സ്വന്തമായിട്ട് ചെയ്തൊരു കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുക അതൊക്കെ ഓരോ പ്രൊജക്റ്റായിട്ട് കൊടുക്കുമ്പോൾ അവരെ പഠിപ്പിച്ച് അവർക്ക് കൂടുതൽ അറിവ് കൊടുക്കുകയും അതിൽ ഉപരി നമ്മുടെ ജനറേഷൻ പുതിയ വരുന്ന തലമുറയ്ക്ക് അതൊരു ഇൻസ്പിരേഷനും ആവും അവരിൽ അവർക്ക് എങ്ങനെ ഈ സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടാമെന്നുള്ളതിനെപ്പറ്റി ഒരു ധാരണയും കിട്ടും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റിയും അതുപോലെതന്നെ ഒരു പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥി ലെവലിലേക്ക് പോകുമ്പോൾ തന്നെ ഏകദേശം പത്താം ക്ലാസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാവർക്കും തന്നെ ഫോൺ യൂസ് ചെയ്യാൻ അറിയാം ഈ വക കാര്യങ്ങളിലൊക്കെ അറിയാം അപ്പോൾ ഇതിനെയൊക്കെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി അവർക്ക് സാധിക്കും